അങ്ങനെയല്ല ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും എല്ലാവരും ഇപ്പോൾ മൊബൈൽ ഫോണിൽ തന്നെയാണ് ഗെയിമ് കളിക്കുന്നതൊക്കെ ഇല്ലെങ്കില് ആദ്യകാലത്ത് എന്ന് പറഞ്ഞാ ഗെയിം കളിക്കാനുള്ള ഒരു സംവിധാനവും സമയമൊന്നും കിട്ടാറില്ല സ്ത്രീകളാണേൽ തന്നെ കൃഷികളിലും കൃഷികളിലും മറ്റ് വീട്ട് കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കയാണ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാല് ഒരുപാട് മാറിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഗെയിമ് കളിക്കുന്നവരൊക്കെ ഒരുപാടുണ്ട് സ്ത്രീകളും സ്ത്രീകളാണ് ഇപ്പോൾ സമൂഹത്തില് ഏറ്റവും കൂടുതലും മുമ്പോട്ട് വന്ന് പരിപാടികൾക്കൊക്കെ മുമ്പോട്ട് വരുന്നത് സ്ത്രീകളും സമുദായത്തിലുള്ളവരൊക്കെ ഗെയിമ് കളിയിൽ പങ്കെടുക്കുന്നത് കുറവാണ് എന്നല്ല ആദ്യ കാലഘട്ടങ്ങളിലാണ് കുറവ് എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ കൂടുതലാണ് അവർക്ക് ഇപ്പോൾ സ്വന്തയിട്ടുള്ള ജോലിയും വരുമാനം നേടാനും എല്ലാം അവരെ കൊണ്ട് പറ്റുന്നുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാനൊ ഒരു സ്വാതന്ത്ര്യം ഒന്നുല്ലായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാം ഇഷ്ടംപോലെ ജീവിക്കാം എന്നൊരു എന്നൊരു ഇതുണ്ട് ഇപ്പോൾ